എനിക്ക് വരക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഡ്രോയിങ്ങ് ഈസ് നമ്മുടെ മനസ്സിൽ നിന്ന് വരണം പ്രകൃതിയെ വരയ്ക്കണം ഞാൻ അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ വരക്കാൻ ആഗ്രഹിക്കുന്നതാണ് മഹാദേവന്റെ ചിത്രം അതായത് മഹാദേവന്റെ അർദ്ധനാരീശ്വര വളരെ ഇഷ്ടമാണ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു ട്രൈ ചെയ്യുന്നു നമ്മളിഷ്ടപ്പെടുന്നത് നമ്മൾ ആത്മാർഥമായി ആഗ്രഹിച്ചാൽ ഒരിക്കൽ നമുക്ക് സഫലമാകും അല്ലേ നമ്മേ തേടിയെത്തും എന്നല്ലേ ഞാൻ ഇടക്കിടക്ക് ആദ്യം ആദ്യം വരയ്ക്കുന്നത് വളരെ ഇതാകും എനിക്കിഷ്ട്ടമുള്ളതാണ് മഹാദേവനെ മഹാദേവന്റെ വലിയൊരു ഭക്തയാണ് ഞാൻ അപ്പം ആ മഹാദേവനെ വരക്കാൻ എനിക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പുണ്യമാണ് ഞാനങ്ങനെ കരുതുന്ന ആളാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്റെ തീരുമാനം ഞാനിങ്ങനെ ഒരു തീരുമാനമാണ് എനിക്ക് അർദ്ധനാരീശ്വരൻ മഹാദേവനെ വരയ്ക്കണം എന്ന് ഉള്ളത് അപ്പം ശ്രീ പാർവതീദേവിയും മഹാദേവനെയും രണ്ടും ഒരു രീതിയിലാക്കി വരയ്ക്കുക എന്ന് വെച്ചാൽ കുറച്ച് ദുഷ്കരമാണെങ്കിലും പലപ്പോഴായാലും ഞാൻ വരക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വരക്കുന്നത് നല്ലൊരു ഹോബിയാണ് ഒരു ഒരു സന്തോഷമാണ്